ഉത്സ പിന്നെ മതപരമായ പരിപാടിക്കായിട്ട് ഞങ്ങളുടെ ആദ്യം ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് പരിപാടിയിൽ പുൽക്കൂട് നിർമ്മിക്കുക എന്നുള്ള ഒരു ഒരു അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് മത്സരങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു പള്ളിയിൽ നിന്ന് ഏർപ്പെടുത്തിയപ്പോൾ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളുടെ പുൽക്കൂട് വളരെ ഭംഗിയായിട്ടുണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ വള ഞാൻ തന്നെ ഉണ്ടാക്കാനായിട്ട് അതു തീരുമാനിച്ച് അങ്ങനെ മാതാവിൻ്റെ രൂപം തടിയിൽ കൊത്തി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നി അതൊരനുഭവമായിരുന്നെനിക്ക് അത് അത് നല്ലതാണ് അതിൻ്റെ അഭിപ്രായം കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഔസേപ്പ് പിതാവിൻറ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപങ്ങൾ ഞാൻ തടിയെക്കൊത്തിയുണ്ടാക്കിയാണ് അന്ന് പുൽക്കൂട് നിർമ്മിച്ചത് വന്ന് കണ്ടവരെല്ലാം വളരെ നല്ല അഭിപ്രായം പറയുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തപ്പോളെനിക്ക് വീണ്ടും അത് അതിനെക്കുറിച്ച് വീണ്ടും പല വിഗ്രഹ ഈ ഇതുപോലെ രൂപങ്ങളുണ്ടാക്കാനായിട്ടുള്ള ആഗ്രഹങ്ങൾ തോന്നി വരും വർഷങ്ങളിൽ അങ്ങനെതന്നെ ഞാനത് ചെയ്തു കൊണ്ടു പോകുന്നു ഇതുവരെ ആയിട്ടും അതിന് പെയ്ൻ്റ് ചെയ്ത് അതിനെ പുതുക്കി പുതുക്കിയെടുക്കുന്നതല്ലാതെ അങ്ങനെയുള്ള അങ്ങനെ ചെയ്തതു കൊണ്ട് യാതൊരു കേടുപാടുകളും ഉണ്ടാകാതെ ഞാനിരുന്ന് അത് വൃത്തിയാണ് ആയിട്ട് സൂക്ഷിക്കുന്നു ഇന്നും മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് മേടിക്കാനും എനിക്ക് അത് ഇടയാക്കിയതു കൊണ്ട് നല്ല ഒരു അനുഭവമായിരുന്നു